ഹൃദയത്തിൻ്റെ മാതൃക ഞങ്ങൾ തെർമോക്കോളിൽ ഉണ്ടാക്കി തെർമോക്കോളിൽ ഉണ്ടാക്കി എക്സിബിഷനായിട്ട് നമ്മളവിടെ കൊണ്ടുവന്ന് വെച്ച് രക്തക്കുഴലുകളും ഹൃദയമിടിപ്പും അങ്ങനെ അതിന് വേണ്ടുന്ന എല്ലാം അങ്ങനെ എല്ലാവരും ഒക്കെ വന്ന് കണ്ടു എല്ലാവർക്കും ഇഷ്ടമായി ടീച്ചേഴ്സും എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ ഞങ്ങൾ എക്സിബിഷനായിട്ട് പിന്നെ നമ്മളെ സ്കൂളിൽ ഒരാഴ്ച വരെ എക്സിബിഷൻ നീണ്ടുനിന്നു അങ്ങനെ പിന്നെ നമ്മൾ പുറത്തു നിന്നുള്ള ഒരുപാട് പേർ വന്ന് കണ്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങളും നല്ല നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് തന്നായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഒന്നാം സമ്മാനം ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്കാണ് അതിന് വേണ്ടിയിട്ട് ഒന്നാം സമ്മാനം കിട്ടിയത് അങ്ങനെ ഞങ്ങളന്ന് വലിയ ഹാപ്പിയായി ഇന്ന് അതൊക്കെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ എന്താപറയുക വേറെ ഒന്നും പറയാനായിട്ടില്ല